ആ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കേ വരത്തുള്ളൂ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നില്ലേ ഓണമൊക്കെ വരുന്നില്ലേ അപ്പോഴത്തേക്കിനും ആ അതെ അതെ അതു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പേർക്കും ഒരു ഫ്രണ്ട്സിനും കുറച്ച് തുണി എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഓക്കെ ആ പുതിയ സ്റ്റോക്സൊക്കെ വന്നല്ലേ നല്ല ഡിസൈനൊക്കെ ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം എനിക്ക് അതു ഞാൻ ഓ വേണ്ട വേണ്ട അങ്ങനെയൊന്നും വേണ്ട ഇപ്പോൾ എടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോകണം ഇപ്പോൾ അത്യാവശ്യമുണ്ട് അപ്പോൾ പെട്ടെന്ന് വേണം ഒരു രണ്ടു പിള്ളേർക്കും പിന്നെ എനിക്ക് രണ്ടു ഫ്രണ്ട്സിനും വേണ്ടി ഓക്കെ ഓക്കെ ആ അപ്പോൾ എനിക്ക് എനിക്ക് ഒരു പ്ലെയിൻ എനിക്ക് ഒരു പ്ലെയിൻ ഷർട്ട് വേണം എനിക്ക് ആദ്യം എനിക്ക് ഒരു പ്ലെയിൻ ഷർട്ടും ഒരു ബ്ലാക്ക് ജീൻസും വേണം ആ ആ അതെ ഒരു ആ ആ ആ ആഷ് എടുക്കാവോ അത് ആ ആഷ് ആ ആഷ് ആ ബ്ലൂ എടുക്കാവോ ലൈറ്റ് ബ്ലൂ ആ ആ ഓക്കെ ഓക്കെ

ആ അതെ മുപ്പത്തിനാല് മുപ്പത്തി നാലാണ് ആ അങ്ങനെ ഒന്നുമില്ല ആ പിന്നെ എന്നാൽ ആ ബ്ലാക്ക് പാന്റും കൂടി എടുത്തേക്ക് എൻ്റെ മുപ്പത്തി ആറാണ് സൈസ് അല്ല പാന്റ് നമുക്ക് മുണ്ടും എടുക്കാമെന്നേ ആ ഓക്കെ ഓക്കെ ആ നോക്കാവേ നോക്കിയിട്ട് വരാവേ ഓക്കെ ആ ഇത് ഫിറ്റ് ആവുന്നുണ്ട് കേട്ടോ ഇത് കുഴപ്പം ഇല്ല ആ ഓക്കെ ആ ആ ഒരു എന്നാൽ ഒരു ഒരു മുണ്ടും കൂടി ഒരു മുണ്ടും കൂടി വേണം എനിക്ക് ബ്ലൂ വേണ്ട മറ്റേ കസവ് എന്നു പറഞ്ഞാൽ ഗോൾഡ് കളർ അത് അതാണ് പിന്നേയും നല്ലത് ഓക്കെ എനിക്ക് വെള്ള ഷർട്ട് ഉണ്ട് ആ വെള്ള ഷർട്ട് ഉണ്ട് അപ്പോൾ അത് മതി ആ ആ ഡബിൾ മുണ്ട് ഗോൾഡ് അതെ അപ്പോൾ എനിക്കുള്ളത് ആയി ആ കുട്ടികൾക്ക് എനിക്ക് പതിനഞ്ച് വയസുള്ള രണ്ട് പിള്ളേരാണ് ആ രണ്ട് ആണുങ്ങൾ രണ്ട് ആൺകുട്ടികൾ അപ്പോൾ അവർക്ക് അല്ല അവർക്ക് പ്ലെയിൻ അല്ല കുറച്ച് ഡിസൈൻ ഫേഷൻ പുതിയ മോഡൽ വിവിധ തരമായിട്ടുള്ള എന്തെങ്കിലും ബാഗി ജീൻസൊക്കെ ഉണ്ടോ ബാഗി ജീൻസ് ആ ആ ആ ഓക്കെ അത് അതൊന്ന് കാണിച്ച് തന്നേ ആ അത് ആ ആ ആ ഓക്കെ ആ പൂവ് അങ്ങനെ ആ ഒരു ഡിസൈൻ പരമായിട്ടുള്ള ഒരു ഒരു ബ്ലൂ കളർ ആ അതെ അത് അത് പിന്നേയും ചേരുന്നുണ്ട് അത് കേട്ടോ അത് ഓക്കെ ഓക്കെ ആ അതെ ആ ഡിസൈൻ ഓക്കെയാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ രണ്ട് ഡ്രസ്സ് ആ അതിൻ്റെ അതിൻ്റെ ഒരു രണ്ട് ഷർട്സ് എടുത്തേക്ക് ഒരുപോലെ നിൽക്കുന്ന രണ്ട് പേരും അടിമേടിക്കും ഇല്ല അത് വ്യത്യസ്തതരമായിട്ട് എടുക്കാത്തത് രണ്ട് പേരും അടി കൂടും ആ ആ ഓക്കെ ഓക്കെ ആ കൂട്ടുക്കാർക്ക് എന്നെപ്പോലെ ഒരു ആ ആ അതുപോലെ എടുത്തേക്ക് ആ അതെ കോമ്പോ ആയിട്ട് ആ അതെ അതെ അതെ

ഓക്കെ ഓക്കേ ശരി പാക്ക് ചെയ്തേക്ക്